ഹലോ ഡോക്ടറല്ലേ ആ നിങ്ങൾ നീ ഇപ്പം അവിടെ ക്ലിനിക്കിലുണ്ടോ ഇത് ഞാൻ രാജൻ രാജ ഗോപാൽ ഞാൻ മഞ്ഞപ്പാടി ഫസ്റ്റ് നമുക്ക് നമ്മളെ സ്കിന്നിന് ചെറിയ ഒരു തകരാറുണ്ട്

എല്ലാം അല്ല എല്ലാം ചൊറിഞ്ഞു കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇടത്തേ കൈ ഇടത്തേ കൈക്കും വലത്തേ കൈക്കും പുറത്തേക്കെല്ലാം ഉണ്ട് അപ്പോൾ അതും അതൊന്ന് നിങ്ങളെ കാണിച്ചിട്ട് വേണം നമ്മൾക്ക് മരുന്നെടുക്കണമെങ്കി

അത് നാലൂസായി ഒന്നോ ഒന്നും ചെയ്തില്ല അത് ഇന്ന് പോകും നാളെ പോകും തേച്ചോണ്ട്ണ്ടായിന് ചന്ദനവും മഞ്ഞൾ എല്ലാം തേച്ചോണ്ട്ണ്ടായിന് കൂട്ടാക്കിയിട്ടില്ല വാലി ഭയങ്കര ചൊറിച്ചിൽ

ബുദ്ധിമുട്ടൊന്നുമില്ല വരാം നിങ്ങളെ ക്ളീനിക്കേടാ കാസർഗോഡ് ആണ് അത് എപ്പവും ഞാൻ ബസ്സിൽ ആ ബസ്സിൽ ബസ്സിൽ ആ അവിടെ തിരക്കുണ്ടോ തിരക്കുണ്ടോ

ആ യേസ് അത് തരാം അപ്പോൾ ടോക്കണിന് നിങ്ങൾ എത്ര രൂപ ആ ആ ആയി ആ ഓക്കെ ഓക്കെ